ആ പറഞ്ഞോളൂ

എന്താ കംപ്ലയിൻ്റ് ആണോ ഇവിടെ നിന്ന് എടുത്തതാണോ ഫോണ് ആയിട്ടില്ല നിങ്ങളുടെ കൈയ്യിൽ അതിൻ്റെ സ്ലിപ്പ് ഒക്കെ ഉണ്ടോ

ഇ എം ഐ ഒക്കെ ഉണ്ട് പലതരം ഫോണുകളും ഉണ്ട് വെറൈറ്റി ആയിട്ട് അത് ഫോണ് ചേഞ്ച് തന്നെ ചെയ്യുന്നാണോ ബാറ്ററി ചേഞ്ച് ചെയ്യാനാണോ ആ ഓക്കെ വരൂ നാളെ വരാം നാളെ വരാൻ പറ്റുമോ

ഞങ്ങൾ ഒരു വൈകുന്നേരം വരെ ഉണ്ടാവും അഞ്ച് മണി വരെ ഷോപ്പ് ഓപ്പണിംഗ് ആണ് ആ അഞ്ച് മണിക്ക് വന്നോ ഓക്കെ ബാറ്ററി ചേഞ്ച് ചെയ്യാം ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് വേറെ ഒരു ഫോണും കൂടി വാങ്ങിക്കണം അല്ലേ ആ റേറ്റ് സ്റ്റാർട്ടിംഗിൽ ടെൻ തൗസൻഡ് തുടങ്ങിയിട്ട് അങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾ വരൂ ആ ആ ഉണ്ട് ഉണ്ട് നിങ്ങൾ വന്നിട്ട് നോക്കൂ ഏതാണ് വേണ്ടത് നോക്കിയിട്ട് എടുത്താൽ അതിലേക്ക് റേറ്റ് പറയാലോ ഡൗൺ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഒരു ആ ഫൈവ് തൗസൻഡ് അതിൻ്റെ ഉള്ളിലേ വരൂ അതിൽ കൂടില്ല എന്തായാലും വന്നിട്ട് നോക്ക് ഏത് ഫോണാണ് എടുക്കുന്നതെന്ന് അറിയാതെ പറയാൻ പറ്റില്ലല്ലോ ആ വന്നിട്ട് നോക്കിയാൽ മതി നാളെ രാവിലെ വരും അല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ